എന്തു വരയ്ക്കണം എന്നുള്ളത് നമ്മുടെ മൂഡിനനുസരിച്ചാണ് ഓരോന്ന് തിരഞ്ഞെടുക്കുന്നത് ഇപ്പം നമ്മൾ ഹാപ്പിയായി നമ്മൾ സന്തോഷത്തിലാണെങ്കിൽ നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കാനും നമ്മൾ സങ്കടത്തിലാണെങ്കിൽ നമ്മൾ ഏകാന്തതയുടെ തരത്തിലുള്ള ഏകാന്തതയിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളും നമ്മളിപ്പം ഒരു ഒരു പ്രത്യേക സങ്കടമാണോ സന്തോഷമാണോ എന്നറിയാത്ത ഒരു അവസ്ഥയിലിരിക്കുമ്പം തുടങ്ങി അങ്ങനെ ഓരോ നമ്മുടെ നമ്മുടെ മാറ്റങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ എന്തു വരയ്ക്കണം എന്നു തിരഞ്ഞെടുക്കുന്നത് വരയ്ക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇത് എന്നുപറയുന്നത് സ്പോർട്സ് കാറുകളുടെ സ്പോർട്സ് കാറുകളുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ വ്യക്തികളുടെ ഓരോരുത്തരുടെ സ്ഥലത്തിരിക്കുന്നതും അവരുടേതായ ചിത്രങ്ങൾ വരയ്ക്കാനും അങ്ങനെ അവർ അവർക്കതു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാനും അങ്ങനെയൊക്കെയാണ് വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പ്രമേയങ്ങൾ